ഇപ്പോൾ കേരളത്തില് പൊതുവേ ആളുകൾ എങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സാംസ്കാരിക പൈതൃകം എങ്ങനെയാണ് കാത്തുസൂക്ഷിക്കുന്നത് അതായത് ആഘോഷിക്കുന്നത് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവർ എന്താ പറയുക അവരുടെ സംസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് കുറേ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് അപ്പോ അതിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക വസ്ത്രധാരണം പിന്നെ ചില സെലിബ്രേഷൻസ് അങ്ങനെയൊക്കെ തന്നെയാണ് കാരണം ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ കാര്യങ്ങളും ഒക്കെ ആണെങ്കിൽ തന്നെ എന്താ പറയുക ഇപ്പോൾ ഓണം ആയിക്കോട്ടെ എന്തെങ്കിലും ഫെസ്റ്റിവൽസൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പോൾ ഓണം വിഷു അങ്ങനെയുള്ള പരിപാടികൾ ഒക്കെ ആണെങ്കിൽ പൊതുവേ കേരളത്തിലുള്ളവര് സെറ്റ് സാരി അങ്ങനെയുള്ളതൊക്കെയാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള ഡ്രസ് കേരളപ്പിറവി അങ്ങനെയുള്ള സമയത്ത് സെറ്റ് സാരി അതായത് സാരിയാണ് മെയിൻ ആയിട്ട് കേരളത്തിലുള്ള സ്ത്രീകളുടെ വസ്ത്രധാരണ പിന്നെ പുരുഷന്മാർ ആണെങ്കിൽ മുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ പൊതുവെ എന്താ പറയുക സംസ്കാരം മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവരുടെ സംസ്കാര രീതിയാണ് അത് കാരണം എന്താ പറയുക ആണുങ്ങൾക്ക് ഒക്കെ ബഹുമാനം കാണിക്കാൻ ഒക്കെ പറ്റിയ ഒരു വസ്ത്രം തന്നെയാണ് മുണ്ട് അപ്പോൾ നല്ല രീതിക്ക് ആളുകൾക്ക് ബഹുമാനം കൊടുക്കാൻ ഒക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ സംസ്കാരം മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവർ ഇതൊക്കെ ചെയ്യുന്നതും